അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ എനിക്കിഷ്ടം ഇന്ന് ഇലക്ട്രോണിക് പതിപ്പുകൾ വായിക്കുന്നതാണ് കാരണം അച്ചടിച്ച പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ലൈബ്രറിയെ ആശ്രയിക്കേണ്ടി വരുന്നു പക്ഷേ ഇലക്ട്രോണിക് പതിപ്പുകൾ ആയതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇൻ്റർനെറ്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഏതൊരു നാട്ടിൽ നിന്നും ഏതൊരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ടും ഒരൊറ്റ ക്ലിക്കിലൂടെ ഏത് ബുക്കാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് പതിപ്പുകൾ ഇന്ന് ലഭ്യമാണ് ഇന്ന് നമ്മൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽക്കൂടി നമുക്ക് വായിക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ ഇൻ്റർനെറ്റിലൂടെ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏതിൻ്റെ ഏത് ക്ലിപ്പ് വേണമെങ്കിലും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ടുതന്നെ നമുക്ക് വളരേ വളരെ സുഖമായിരുന്നു വായിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അച്ചടിച്ച പുസ്തകങ്ങൾ ആവുമ്പോൾ നമ്മള് പേജ് മറിക്കുന്നു അതിന് ഒരു കാറ്റ് വീശുമ്പോൾ പേജ് മറിഞ്ഞു പോകുന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഇലക്ട്രോണിക് പതിപ്പുകളില്ലാതിരുന്ന കാലത്തേ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് വായിക്കാൻ ഒക്കെ പറ്റിയായിരുന്നു പക്ഷേ ഇന്ന് സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഇലക്ട്രോണിക് പതിപ്പുകൾ ആയതുകൊണ്ട് ഏതൊരു നാട്ടിൽ നിന്നും ഏതൊരു സമയത്തും ഏത് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം ഇലക്ട്രോണിക് പതിപ്പുകൾ വായിക്കുന്നതാണ് ഓഡിയോ ബുക്കുകൾ ഞാൻ അങ്ങനെ കേൾക്കാറില്ല